ഹലോ അതെ അതെ പറയു ആ എന്താ കാര്യം ചക്രപാണി ടെംബിൾ അല്ലേ എത്ര മണിക്കാണ് ഓ രാവിലെ ആ നിങ്ങൾ എത്ര മണിക്ക് പുറപ്പെട്ട് നിൽക്കും കാസർഗോഡിന്ന് അല്ലേ ചെറുവത്തുരായിട്ട് വരും അത് ഇപ്പം ചെറുവത്തുര് എന്നുപറഞ്ഞാൽ റിക്ഷേൽ പോവുമ്പോൾ ഓട്ടയിൽ പോവുമ്പോൾ ഒരു രണ്ടര രണ്ട് രണ്ട് മുക്കാൽ മണിക്കൂറ് വേണമെന്ന് തോന്നുന്നു അ എന്നുവെച്ചാൽ കാസർഗൊഡിന്ന് കുറെ പോകണം അപ്പോൾ ആ അപ്പോൾ നിങ്ങൾ അഞ്ച് അഞ്ചേമുക്കാലിന് റെഡി ആയിട്ട് നിൽക്കുന്നത് ആണ് നിങ്ങൾക്ക് നല്ലത് അ ആ സമയത്താണെങ്കിൽ നമുക്ക് എത്താല്ലോ

നിങ്ങൾ കാസർഗൊഡിൽ കാത്തുനിന്നാൽ മതി ഞാൻ അവിടത്തേക്ക് വരാം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ മതി ആ അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ മതി ഞാൻ നിങ്ങളെ കൊണ്ടോവാൻ വരാം ആ ഒരു ഓട്ടോ ചാർജ് ഒരു സിക്സ് ഹൺഡ്രഡ് എയിറ്റ് ഹൺഡ്രഡ് വരും ആ അത്ര ദൂരൊണ്ടല്ലോ രണ്ടേമുക്കാൽ മണിക്കൂറെന്ന് വെച്ചാൽ ആ അതെ രണ്ടും രണ്ടും ചേർന്നിട്ടാണ്

ഉച്ച ഭക്ഷണം ഉച്ച ഭക്ഷണം ഉണ്ട് രാവിലത്തെ പ്രസാദം ഉണ്ട് ഉച്ച ഭക്ഷണം അതിൻ്റെ ഈ സമയത്ത് ആ വഴിപാട് എടുക്കേണ്ടി വരും എന്തായാലും ഓക്കെ

ആ ശരി വെയ്റ്റിംഗ് ചാർജ് എക്സ്ട്രാ ഒന്നുമില്ല ഫിഫ്റ്റി റുപ്പീസ് അത്രേ ഉള്ളൂ അ അതെ അതെ ഫിഫ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ നൂറ് രൂപ അത്രേ ഉള്ളൂ ഒ നയൺ ഹൺഡ്രഡ് വരും ഏകദേശം അ ആ അതെ അതെ അ അതെ അതെ ആ ശരി അതെ ശരി ശരി ആ ശരി